ഹലോ സാർ എൻ്റെ പേര് മിസ്റ്റർ റയോൺസ് എനിക്കൊരു പി എം കെ വി വൈ കോഴ്സിൽ ചേരാനുള്ള ആഗ്രഹം ഉണ്ട് അപ്പം അത് എത്ര ഏതൊക്കെ കോഴ്സുകളുണ്ട് അതിൻ്റെ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഇത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഇൻസ്റ്റ്യൂഷൻ ഉള്ളത് ആ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഫീൽഡെന്നു പറഞ്ഞാൽ ഈ ഫിറ്റിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഉചിതം പിന്നെ എൻ്റെ സ്ഥലം തിരുവനന്തപുരം വട്ടപ്പാറ എന്നു പറയും അപ്പം ഇതിന് അടുത്തുള്ള ഏതെങ്കിലും ഇൻസ്ട്യൂഷനോ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതായിരിക്കും ഉപകാരപ്രദം പിന്നെ ഈ കോഴ്സ് അതിൻ്റെ കാലാ കാലാവധിയെ പറ്റിയും അറിയണം അതായത് ആറുമാസമാണോ അതോ ഒരു വർഷമാണോ അല്ലേ രണ്ടു വർഷമാണോ ഇനി ഫീസെന്തെങ്കിലും ഉണ്ടോ പിന്നെ ജോലി സാദ്ധ്യത എങ്ങനെയൊക്കെയാണ് പിന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഓ അങ്ങനെ എന്തെങ്കിലും ഒൾ ഉണ്ടോ അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്